മുപ്പത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ഏഴ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഇരുപത്തി നാല് പന്ത്രണ്ട് രണ്ടായിരത്തൊന്ന് പതിനാല് പതിനൊന്ന് രണ്ടായിരത്തഞ്ച് ഇരുപത്താറ് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല്